ഞാനൊരു കമ്പ്ലൈൻ്റ് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എൻ്റെ പേര് സിനു ഞാൻ വലിയതുറയിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ കുച്ചുമുമ്പ് ഞാനൊരു ഓഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞതിൽ രണ്ട് മൂന്ന് ഐറ്റം എനിക്ക് കിട്ടിയിട്ടില്ല രണ്ട് മൂന്ന് സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ബിരിയാണി ചിക്കൻ പൊരിച്ചതും ബീഫ് ഉലത്തിയതും പെപ്സിയും സെവൻ അപ്പും എക്സ്ട്രാ മയൊണൈസും ഇത്രയാണ് ഓഡ്റ് ചെയ്തത് ഓഡ്റ് ചെയ്തതിൽ എക്സ്ട്രാ മയണൈസ് ഇല്ലായിരുന്നു എന്നാലും അത് നമ്മുടെയിൽ പാക്കേജിൻ്റെ കൂടെ ഉൾപ്പെട്ടിട്ടുള്ള എക്സ്ട്രാ ഒരു സാധനമായിരുന്നു എക്സ്ട്രാ മയണൈസ്സ് അപ്പോൾ കിട്ടിയ ഓഡ്റിൽ ഇപ്പോൾ നോക്കിയിട്ട് പെപ്സിയും ഈ എക്സ്ട്രാ പറഞ്ഞിരുന്ന മയണൈസും കാണാനില്ല അപ്പം ക്യാഷ് നമ്മൾ അടച്ചതാണ് ഫുള്ളും പറഞ്ഞ ക്യാഷ് അനുസരിച്ച് എക്സ്ട്രാ മയണൈസിന് ഉള്ളതും അതുപോലെത്തന്നെ മൊത്തം സംഭവത്തിൻ്റെ മൊത്തം ഓഡ്റ് ചെയ്ത സാധനങ്ങളുടെ ക്യാഷും അടച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് അപ്പം കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാൻ പട്ടില്ലെങ്കിൽപ്പിന്നെ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇതൊരു കമ്പ്ലൈൻറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പം എത്രയും പെട്ടെന്ന് ഇത് ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും അതുപോലെത്തന്നെ കറക്റ്റ് സമയത്തിനല്ല ഓഡ്റ് വന്നേക്കുന്നത് ഓഡ്റ് ലേയ്റ്റ് ആയിട്ടാണ് വന്നത് ഡെലിവറി ചെയ്തിരിക്കുന്നത് ഓഡ്റ് ലേയ്റ്റ് ആയിട്ടാണ് അതുപോലെത്തന്നെ എല്ലാ സാധനങ്ങളും അതിൻ്റെ കൂടെ ഇല്ല അപ്പോൾ നമ്മൾ നിങ്ങളെ വിശ്വസിച്ച് കറക്റ്റ് സാധനങ്ങളാണോ നിങ്ങൾ കൊണ്ടുതരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഓഡ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണിക്കാൻ പാടില്ല അപ്പം നിങ്ങൾ ഡെലിവറി ബോയ്സ്നേയല്ല ആരായാലും നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ഉള്ള പരാതി ആണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്ക് ഇങ്ങനൊരു പരാതി വന്ന് നിങ്ങൾക്ക് പരാതിയുണ്ട് നിങ്ങൾക്ക് അതിന് എന്ത് നടപടി എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റും വീണ്ടും എനിക്ക് എനിക്ക് ഓഡ്റ് വീണ്ടും ആ ഞാൻ ചോദിച്ച സാധനങ്ങൾ തന്നെ വീണ്ടും എത്രയുംപെട്ടെന്ന് എത്തിക്കുന്ന എത്തിക്കുകയാണെങ്കിൽ ഞാൻ കംപ്ലൈൻ്റ് പിൻവലിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഹയർ അതോരിറ്റിക്ക് അങ്ങനെ ഉള്ള കമ്പ്ലൈൻ്റ് കൊടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാൻ എനിക്ക് ഒരുക്കമാണ് എനിക്ക് അതിന് വേറെ കുഴപ്പം ഒന്നും ഇല്ല എത്രയും പെട്ടെന്ന് ആ ഓഡ്റ് തന്നാൽ നല്ലതായിരിക്കും അത് അല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നടപടി എടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കൊണ്ടുവരാൻ ശ്രമിയ്ക്കുക പ്ലീസ്